ഈ വക്കീല് ആയിട്ട് അങ്ങനെ തഹസീലില് ഓഫീസറ് പഞ്ചായത്ത് അംഗങ്ങളായിട്ട് അങ്ങനൊന്നും ഇല്ല എന്നാൽ പോലീസായിട്ട് പിന്നെ ഒരുപാടുണ്ട് പറയാന് പോലീസെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് വീടിൻ്റെ അടുത്തൊരു കള്ളൻ വന്നു അവരിങ്ങനെ എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ ഇണ്ടായിരുന്നു അവരുടെ കയ്യില് ഞങ്ങളാകെ പേടിച്ചിരിക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളു പോലീസിനെ വിളിച്ചിട്ടാണെങ്കില് അവര് വരുന്നൊന്നും ഇല്ല ഇപ്പം വരാന്ന് പറഞ്ഞു ഒരു പത്തു മിനുറ്റിനുള്ളില് അവിടെ എത്താം ഏതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പത്തു മിനുറ്റിനുള്ളില് എത്താന്ന് പറഞ്ഞിട്ട് അവര് വന്നില്ല അവര് ഞങ്ങള് പേടിച്ചിരിക്കുകയാണ് പിന്നേയും പിന്നേയും ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അവരാണേൽ എടുക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കള്ളന് കുറെ നേരം ഡോറു തുറക്കാൻ ഒരുപാട് നേരം പരിശ്രമിച്ചിട്ടൊന്നും തുറക്കാൻ പറ്റിയില്ല ലാസ്റ്റ് കള്ളൻ പോയി കള്ളൻ പിന്നെ ലാസ്റ്റ് പോയി അപ്പോഴൊണ്ട് പോലീസ് പോലീസൊണ്ട് പിന്നെ ഒരു ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പൊണ്ട് തിരിച്ചു വിളിക്കുന്നു എന്തായി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങളങ്ങോട്ട് കുറെ പ്രതികരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പോലീസിൻ്റെ ഒരുപാടു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പോലീസ് വരാന്ന് പറയും എന്തെങ്കിലും ആവശ്യ സമയത്തു വിളിച്ചാല് അങ്ങനെ അവര് വരുവൊന്നും ഇല്ല അങ്ങനെ പറയുക മാത്രമേ ചെയ്യുകയേ ഉള്ളു പിന്നെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തു അംഗങ്ങന്ന് പറഞ്ഞാൽ പഞ്ചായത്തില് എന്തെങ്കിലും ഒരു ആവശ്യത്തിനു പോയാൽ ഇപ്പം റെഡി ആക്കി തരാം ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ ആ വഴിക്ക് കാണുകയും കൂടി ഇല്ല അങ്ങനൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടൊക്കെ